ഹലോ ഷീബായാണോ അ ഓ വീടുപണി ആ തീരാറായി വരുന്നു തേപ്പൊക്കെ നടന്നോണ്ടിരിക്കുവാണ് അക്കരേലെ ആ രഘുവാണ് ആ ആ രഘു ആ നല്ല പണിയ കുഴപ്പമില്ല എല്ലാം നല്ലതായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ സാമ്പത്തികമൊക്കെ ലോണൊക്കെ എടുത്ത് ചെയ്യുന്നത് ആ ആ അതെയതെ പലിശ ആ ഓണടുക്കെ കയറാവുന്നൊക്കെയുള്ള പ്ലാനൊണ്ട്

ആ ഹാ ആ സാധനമൊക്കെ ഇറക്കി തീർന്നിനി പെയിൻ്റടിച്ച് തേച്ചു എല്ലാം കഴിഞ്ഞ് ഇനി തറയിട്ട് പെയിൻ്റടിച്ച് ഒക്കെ മതി അത്രയ്ക്കേ ഉള്ളൂ ബാക്കിയൊക്കെ ആ ആ

ഓ അങ്ങനെ ആൾക്കാരെ ഒന്നും വിളിക്കുന്നില്ല കുറച്ച് പേര് മാത്രം ആ അച്ഛനെ വിളിച്ചങ്ങ് പാല് കാച്ചി കയറാമെന്ന് ഉദ്ദേശിക്കുന്നു ആ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പണിയല്ലേ പ്രാർത്ഥിച്ചോണം ആ ആ നല്ല രീതിയിൽ പണിയൊക്കെ ചെയ്യും നല്ലതാ നല്ല മനുഷ്യനാ ആ കൊഴപ്പൊന്നുമില്ല നല്ല ആ

ആ ഉണ്ടുണ്ടുണ്ട് എല്ലാം ഉണ്ട് ആ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ആ ആ ഞങ്ങൾ മൂന്ന് മുറിയും അടുക്കളയും ഹാളും ഹാളും ഓ ഇല്ല ഇല്ല സാമ്പത്തികം ഇല്ല മേലോട്ട് കെട്ടാനായിട്ട് ഒന്നും ആ രഘു രഘു പുള്ളീടെ വീട് നമ്മുടെ നേരെ അക്കരെ അക്കരെ ഇറങ്ങീ ശകലം തെക്കോട്ട് പോയാൽ മതി നല്ല പണിക്കാരാണ് ആ നല്ല നീറ്റാ നല്ലതാ കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് ചെയ്യുന്ന ആ അവർ അഞ്ച് ആറ് പേരുണ്ട് ആ പിന്നെ ഇല്ല ടൈയിലൊന്നും ഇടുന്നില്ല നമ്മുടെ സാധാരണ മണ്ണ് മതി നമുക്കതാ നല്ലത് ആ ആ കാശ് വേണ്ടായോ കാശ് വേണ്ടായോ ടൈൽ ഇടണമെങ്കിൽ ആ ആ ഞങ്ങൾ പഞ്ചാബ് ബാങ്കീന്ന് ആ പഞ്ചായത്തിലൊന്നുമില്ല ആ സ്വന്തമായിട്ടാണ് പഞ്ചായത്തിലെ ഇസാഫിൻ്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറിയ ചെറിയ ലോണുകളൊക്കെ എടുത്താണ് ചെയ്യുന്നത് പണിക്കാര് ചില ദിവസം ആറ് പേര് വരും ചില ദിവസം അഞ്ച് പേര് വരും ആ ചോറും കറിയൊക്കെ കൊടുക്കാറുണ്ട് രാവിലെ കാപ്പിയും ഉച്ചയ്ക്ക് ചോറ് അല്ല അല്ല നമ്മൾ സാധനമിറക്കി കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യിക്കുവ ആളെ വിളിച്ച് ചെയ്യും മൂന്ന് മുറിയും അടുക്കളയും പിന്നെ ഹാളും സിറ്റ് ഔട്ടും ആ വർക്കേരിയൊന്നുമില്ല ആ ചെറിയൊരു വീട് സാധാരണ വീട്

മേളിൽ ഷീറ്റ് ആ ശരി ആ ശരി എന്നാൽ ആ ശരി ആ നാളെ കാണാം ആ പെരവാസ്തുലിക്ക് വിളിക്കും വരണേ ആ ആ ആ ശരി ഓക്കേ